ഹാലോ സാർ ഇത് രെജിസ്ട്രേഷൻ ഓഫീസല്ലേ ആണോ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ കുഞ്ഞിൻ്റെ ജനന സർട്ടിഫിക്കറ്റിനായി ജനന സർട്ടിഫിക്കറ്റിന് വേണ്ടി ഞാൻ ഡീറ്റൈലവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സർട്ടിഫിക്കറ്റിലെനിക്ക് കുഞ്ഞിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തില് ഒരു ഡെയ്റ്റിനകത്തൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞ് ആറാം മാസത്തിൽ ജനിച്ചതിന് അഞ്ചാം മാസം ആണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ എനിക്കാ ഡേറ്റൊന്ന് ചെയ്ഞ്ച് ചെയ്ത് തരണമായിരുന്നു അതിന് എന്തെല്ലാം ഡീറ്റെയിൽസാണ് വേണ്ടതെന്ന് സാറൊന്ന് പറയാവോ ഞാനിത് എൻ്റെ സ്കാ ഹോസ്പിറ്റലിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് കോപ്പി ഞാനവിടെ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു എങ്കിലും ഇത് തെറ്റായിട്ടാണ് വന്നിരിക്കുന്നത് അതിന് ഞാനാട്ടെന്ത് ഡീറ്റെയിലാണ് വേണ്ടതെന്ന് സാറൊന്ന് പറഞ്ഞെങ്കിൽ ഞാൻ വന്ന് അത് കറക്റ്റ് ചെയ്യാമായിരുന്നു